അതേ പറഞ്ഞോളൂ ഹലോ കേൾക്കുന്നില്ലേ

അതേ പറഞ്ഞോളു

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ പച്ചക്കറികൾ ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടി വരുവാന്നുള്ളത് ആ അതെയതെ അതെ ആ ഉവ്വാ ഉവ്വാ എല്ലാം ഉണ്ട് നമ്മടടുത്ത് ആ ഉണ്ട് ഉണ്ട് ആ ആ അതെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ പറഞ്ഞോളു ആയിരം പേർക്കെന്ന് പറയുമ്പോൾ നമുക്കൊരേകദേശമൊരു വൺ ലാക്കിൻ്റടുത്താണ് സാധാരണ വരാറ് പക്ഷേ ഇപ്പോഴത്തെ പച്ചക്കറി റേറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നിങ്ങളേതൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമുക്കാ ലിസ്റ്റ് കണ്ടാലല്ലേ പറയാൻ പറ്റുവൊള്ളു അപ്പോൾ ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആ അതിൽ എന്തോരം ക്വാണ്ടിറ്റി വേണോന്നുള്ളത് ലിസ്റ്റ് നോക്കിയാലല്ലേ അറിയാൻ പറ്റുവൊള്ളു അപ്പോൾ നമുക്കോരോ പച്ചക്കറീടേം ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റനുസരിച്ചിട്ട് നമുക്ക് നമ്മക്കെന്താ വേണ്ടേന്ന് വെച്ചാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാം ആ അപ്പം നിങ്ങൾ ലിസ്റ്റൊന്നെത്തിക്കാൻ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് നമ്മളെങ്ങനെ പച്ചക്കറി നിങ്ങൾക്ക് ഡെലിവെറി ചെയ്യണോ പച്ചക്കറി നമ്മളവിടെ ഡെലിവെറി ചെയ്യേണ്ടി വരുവോ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡെലിവെറി ചാർജ്ജും എക്സട്രാ വരും അതെയതെ അതെ അപ്പം നിങ്ങളെന്തായാലും നമുക്ക് ലിസ്റ്റ് ഒന്ന് നമുക്ക് ലിസ്റ്റ് എത്തിച്ച് തരാൻ നോക്കുവാ അപ്പം നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതട്ജസ്സ്റ്റ് ചെയ്ത് റേറ്റും ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അ ആ ഒ ഓ അത് നമുക്കയിനനുസരിച്ചിട്ട് എന്തായാലും ലിസ്റ്റ് കണ്ട് നമുക്ക് നോക്കീട്ട് അതിനനുസരിച്ച് റേറ്റൊക്കെ കുറച്ച് എന്തായാലും നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഞങ്ങൾ തരാം എന്തായാലും നിങ്ങളെന്തായാലും ലിസ്റ്റുവായിട്ട് നേരിട്ട് വരൂ അപ്പയിനനുസരിച്ച് നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ ഓക്കെ താങ്ക് യൂ